ഇത് വന്നതിന് ശേഷമാണ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സമയ സമയ ലാഭം ഉണ്ടായത് അത് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സ് അത് തന്നെ പറയാം ഇപ്പം എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ക്ലാസുകളാണ് അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ പിന്നെ ഗൂഗിൾ പേ പിന്നെ അതൊക്കെ ഇപ്പം ക്യാഷ് ആണെങ്കിൽ പോലും അയക്കണമെങ്കിൽ നമ്മൾ ഒത്തിരി ഒത്തിരി ഒന്നുല്ലെങ്കിൽ അയാളെ പോയി കണ്ടുപിടിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലു ഒരു ട്രാൻസ്ഫർ വഴി അയക്കണം അങ്ങനെ ഒക്കെ ഇപ്പം അതായത് ബാങ്കിൽ പോയിട്ട് ഡയറക്റ്റ് അയക്കാം അങ്ങനെ ഒക്കെ ഇതിപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ രീതിയിൽ തന്നെ നമുക്ക് അയക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം സ്മാർട്ഫോൺ വന്നതിന് ശേഷമാണ് ഇതിന് ഒത്തിരി ഡിസ്അഡ്വാൻ്റെജ് ഉണ്ടെങ്കിൽ പോലും ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏതൊരു ഇപ്പം എന്ത് ഇപ്പം ഭൂമിയുടെ ചലനം തന്നെ ഇപ്പം സ്മാർട്ഫോൺ വന്നതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുന്നു എന്ന് തോന്ന ഇപ്പം ഒരു ക്ലൈമറ്റിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ പഠിക്കുന്ന കാര്യം ആണെങ്കിലും പേയ്മെൻ്റ് നടത്തുന്ന കാര്യമാണെങ്കിലും എന്തോ ഏതൊരു കാര്യത്തിന് നമുക്ക് സ്മാർട്ഫോൺ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ ഡെവലപ്പ് ആയത് ഇപ്പം പറയുകയാണെങ്കിൽ ഒരു എക്സാംമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പം ട്രെയിനിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പം ട്രെയിൻ അതിൻ്റെ സമയം നമുക്ക് അറിയത്തില്ല ഇപ്പം ഒരു കാര്യം ഇപ്പം ഇന്ന സമയത്ത് ഇന്ന ട്രെയ്ൻ പോവും എന്നുള്ളത് അവിടെ ഇരിക്കുന്നവർക്ക് അറിയുന്നതല്ലാതെ നമുക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ സ്മാർട്ട്ഫോൺ വന്നതിന് ശേഷമാണ് നമ്മൾ അതിനകത്ത് ആപ്പ്ളിക്കേഷൻസും കാര്യങ്ങളൊക്കെ അറിയാനും പിന്നെ നമുക്ക് സ്വന്തമായിട്ട് കാണാനും എപ്പം എപ്പം വരും എങ്ങനെ വരും ഏതിൽ കൂടെ വരുന്നത് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് എന്തൊരു കാര്യവും ഇപ്പം സ്മാർട്ട്ഫോൺ വഴിയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഒരു നല്ല മാറ്റം തന്നെയാണ് സ്മാർട്ട്ഫോണ് ഉണ്ടായത് അഡ്വാൻ്റേറ്റേജും ഡിസ്അഡ്വാൻ്റേജും ഉണ്ട് അഡ്വാൻറ്റേജ് ആണ് ഇത് ഡിസ്അഡ്വാൻ്റേജ് എന്നു പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും വഴി ഒരുപാട് ഒരുപാട് ഹാക്ക് ചെയ്യുന്നുണ്ട് ഹാക്കേഴ്സും അങ്ങനെ ഇങ്ങനെ ഒക്കെ ഇറങ്ങുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം സ്മാർട്ട്ഫോൺ വഴി നമുക്ക് ആവിശ്യമില്ലാത്ത ഒത്തിരി ഒത്തിരി ഒത്തിരി എന്താണ് ഫെയിലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പിള്ളേരെ ബ്ലൂ വൈൽ ഗെയിംസ് അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗെയിമുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി ഒത്തിരി ഇത് വന്നിട്ടുണ്ട് പാഴ് വന്നിട്ടുണ്ട് അപ്പം സ്മാർട്ട്ഫോണിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഒന്ന് ജിപെ ആ സംഭവം നല്ല കണക്ക് വർക്കിംഗ് ആണ് അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സ് നോട്ട് അതൊക്കെ നമ്മൾക്ക് ഭയങ്കര നമ്മുടെ സൗകര്യത്തിന് എടുത്ത് പഠിച്ചാൽ മതിയല്ലോ വാട്ട്സപ്പ് ഗ്രൂപ്പ് എന്തൊരു ഇപ്പം ഇപ്പം അകലെ ഇപ്പം ഒത്തിരി ദൂരെ വർക്ക് ചെയ്യുന്ന ഒരാൾ ആണെങ്കിൽ നമുക്ക് അവരെ കാണണമെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഒന്നുമില്ലെങ്കിൽ അവർ പോയി അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്ന് അറിയുന്നതു പോലും ഒനുമല്ലെങ്കിൽ അവർ തിരിച്ച് വരുമ്പം വരുമ്പം പറയാം വന്നു എന്ന് വന്നില്ലെങ്കിൽ അവർ മരിച്ചെന്ന് തന്നെ വിചാരിക്കും അത് ഒരുപക്ഷെ ഇപ്പം സ്മാർട്ട് ഫോൺ വന്നതിന് ശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും എന്തൊരു കാര്യം അറിയാത്ത എല്ലാ കാര്യവും ഇപ്പം അവരെ വീഡിയോ കോള് ചെയ്യാൻ പറ്റുന്നു അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും എന്ന് അങ്ങനെയുള്ള സകല കാര്യങ്ങളും നമുക്ക് സ്മാർട്ട് ഫോൺ വഴി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ സ്മാർട്ട്ഫോൺ വന്നതിന് ശേഷമാണ് നമ്മൾ ഇപ്പം ഇപ്പം ഇപ്പം എവിടെ എങ്കിലും പോവുകയാണ് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് മിസ്സായെങ്കിൽ പോലും എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ വഴി നമുക്ക് അറിയാൻ പറ്റുന്നത് കൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് റൂം റൂമിൽ പോയാൽ പോലും ഇപ്പം അതിനകത്ത് സ്കാനറും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ ക്യാമറ ഉണ്ട് ഇല്ല അങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെ എല്ലാവിധ എല്ലാ തരത്തിലുമുള്ള സാധനങ്ങളും സ്മാർട്ട്ഫോൺ വഴി നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും ഗുഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്നെയും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെച്ചപ്പെടുത്തിട്ടുള്ളത്